നമുക്ക് അറിയാം കൃഷി എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ് പക്ഷേ ആ ബുദ്ധിമുട്ട് എത്ര സഹിച്ചാലും അതിന് ലഭിക്കുന്ന ഫലം വളരെ വലുതുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്ത് കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥകൾ തെറ്റിക്കൊണ്ട് കാലങ്ങൾ തെറ്റി കൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും ഉദാഹരണത്തിന് കൃത്യസമയത്ത് മഴ ലഭിക്കാതെ കാലം തെറ്റിക്കൊണ്ട് മഴകൾ മഴകൾ വരുന്നു അത് കാരണം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഉരുൾ പൊട്ടലുകൾ മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് ഇത്തരത്തിലുള്ള കർഷകർക്കും കൃഷികൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് പല പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികൾ അധികവും പാവപ്പെട്ട ആളുകളായിരിക്കും അത് അവർക്ക് ഇത്തരത്തിലുള്ള കാലാവസ്ഥകൾ തെറ്റി കൊണ്ടുള്ള മഴകൾ ലഭിക്കുന്നതിലൂടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും വൻ നാശമാണ് അത്തരത്തിലുള്ള കർഷകർക്ക് ലഭിക്കുക എന്നിരുന്നാലും ഇതെല്ലാം ഭയക്കാതെ ഇത്തരത്തിലുള്ള പാവപ്പെട്ട കർഷകന്മാരെ വീണ്ടും കൃഷികളിലേക്ക് ഏർപ്പെടുന്നു എന്നതിൻ്റെ കാരണം അതിൽ അത്രയും ആനന്ദം കണ്ടെത്തുന്നവരാണ് ആ കർഷകർ അവർക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും ആ ബുദ്ധിമുട്ടിന് മറികടക്കുന്നവരാണ് കർഷകർ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവം അതിനു ശേഷം ഒരു സന്തോഷം ഒരു നല്ല സംഭവം തരുമെന്നുള്ളതിൻ്റെ ശുഭ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ കർഷകർ അധികം അധികം കർഷകന്മാരും ഇത്തരത്തിലുള്ള കൃഷികളിലേക്ക് ഏർപ്പെടാറുള്ളത് പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യം നോക്കുമ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കേരളം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്കും വെള്ളപ്പൊക്കങ്ങൾക്കും കാരണം നേരിടേണ്ടി വന്നിട്ടുണ്ട് വെള്ള പൊക്കങ്ങളിലൂടെയും എല്ലാം ഒരുപാട് കൃഷി നാശങ്ങൾ കേരളത്തിൽ സംഭവിച്ചു അതിനെ എല്ലാം തരണം ചെയ്ത് കൊണ്ട് കർഷകന്മാർ വീണ്ടും കൃഷികളിലേക്ക് ഇറങ്ങി ഇതാണ് കർഷകരുടെ മനസ്സ് കർഷകരുടെ മനസ് മറ്റുള്ള ബിസിനസ്സ് ആളുകളെക്കാളും വളരെ ശുദ്ധമായ മനസ്സും ഉൾക്കരുത്തുമുള്ള ഒരു പ്രവർത്തികളാണ് ഈ കർഷകർ അതുപോലെ നമ്മൾ ഈ ദുരന്തങ്ങളിലൂടെ നമ്മൾ വിളകൾ നശിച്ചാൽ സർക്കാർന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങളും പദ്ധതികളും എല്ലാം നിലവിൽ ഒരുപാട് പദ്ധതികൾ അത്തരത്തിൽ ഉണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും തടസ്സം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള കർഷകർക്ക് വരാറില്ല എന്നിരുന്നാലും ചുരുക്കം ചില കേസുകളെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്